അതേ ഞാൻ പാറത്തോട്ടിനാരുന്നു എനിക്ക് ഇന്നത്തെ ഫങ്ക്ഷനായിട്ട് കുറച്ച് നെല്ലിക്ക ഏത്തയ്ക്ക ചക്കയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എല്ലാമൊരു അഞ്ചു കിലോ വീതം വെച്ചു വിട്ടേരെ ഇപ്പോൾ ഒരു സെവെൻ ക്ലോക്ക് ഒക്കെയാവുമ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആവുമ്പത്തേക്കും ഓൺലൈൻ ഡെലിവറി മതി ഇപ്പം ബിസ്സിയാണ് അതുകൊണ്ടാണ് ഈ ചക്ക ഈ ചക്ക ഏതു ഫ്ളേവറാണ് മീൻസ് തേൻ വരിക്കയാണോ കൂഴയാണോ ഏതാ ഉള്ളത് ഓക്കെ ആ തേൻവരിക്കയുടെ റേറ്റ് എത്രയാ മ്മ് മറ്റുള്ളവയ്ക്കോ ഏത്തയ്ക്ക നെല്ലിക്കയൊക്കെ മ്മ്

ആപ്പിൾന് റേയ്റ്റ് എത്രയാ അറുപത് അപ്പോൾ അതും ഒരു ആറ് കിലോ ഓറഞ്ചോ ആറ് കിലോ ആറ് ഓറഞ്ചോ ഇരുപത് അതും ആറ് കിലോ എടുത്തോ വേറെ അതിനൊക്കെ എത്രയാ റേയ്റ്റ് ആണോ ഓക്കെ എന്നാൽ അത് എടുത്തോളൂ മ്മ് അപ്പോൾ ഇത് കൊണ്ടുവന്ന് തരാൻ നിങ്ങൾക്ക് ഇത്രയും ബോക്സ് ഉണ്ടല്ലോ അപ്പോൾ കുഴപ്പം ഒന്നും ഇല്ലല്ലോ ഡെലിവറി ചാർജ് എത്രയാ അപ്പോൾ ആ ഓക്കെ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ സീത സീതപ്പഴമുണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഓക്കെ അതിൻ്റെ റേയ്റ്റ് എങ്ങനെയാ മുന്നൂറുരൂപ ഓക്കെ അത് ഒരു അഞ്ച് കിലോ അത് വേറെ ഏതാ സീതപ്പഴവൊണ്ടോ മ്മ് പിന്നെ ആ ബനാന വേണം പേരക്ക മീൻസ് ഏതാ ഗോവാ അത് ചൊമന്നിരിക്കുന്നതാണോ വെളുത്തതാണോ ആ അത് രണ്ടും ഒരു അഞ്ചു കിലോ വീതം വെച്ച് മ്മ് മ്മ് ആ ബില്ല് വേണം അതിൻ്റെതന്നെ ഒരു എക്സ്ട്രാ ബില്ലുംകൂടി വേണേ ഓക്കെ ഇപ്പം പിന്നെ എത്രയായിക്കാണും മ് ഓക്കെ ഓക്കെ ഓൺലൈൻ പേയ്മെൻ്റ് നിങ്ങൾ എടുക്കുമോ ഓക്കെ നമ്പറ് ഒന്ന് വാട്ട്സ്സപ്പ് കൃത്യം ഏഴുമണിക്ക് ഏത് ലൊക്കേഷൻ അയച്ചേക്കാം വാഹനം ഏതാ ബൈക്കാണോ അതോ ചെറിയ ഇതാണോ ബൈക്ക് ഓക്കെ ഓക്കെ ഞാൻ ലൊക്കേഷൻ ഇട്ടേക്കാവേ ഓകെ ഓൺലൈൻ പെയ്മെൻ്റ്ൽ യോനോയുടെ ഉള്ളത് അപ്പം അത് നിങ്ങൾക്ക് ഉണ്ടോ ഓക്കെ ഓക്കെ മ്മ് ഓക്കെ